ഹലോ ഇത് റിയ ട്രാവൽസ് അല്ലേ എനിക്കേ ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഒരു നാല് പേർക്കുള്ള കിടപ്പ് സൗകര്യങ്ങളും അതുകൂടാതെ ഒരു ആറ് പേർക്കുള്ള കിടപ്പ് സൗകര്യങ്ങളുമുള്ള ഒരു ക്യാബിൻ്റെ ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ റേറ്റുകൾ ഒന്നെനിക്ക് പറഞ്ഞു തരാമോ എനിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുതാണ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ അറിയിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് തക്ക മറുപടി തരികയും ചെയ്യാം ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്യാം രണ്ട് ഇതിൻ്റെ കൂടെ വ്യത്യാസം ഒന്നു പറഞ്ഞു തരണേ നാല് പേർക്ക് ഉള്ളതും ആറ് പേർക്ക് ഉള്ളതും അപ്പോൾ അതിന് വേണ്ടി കാറ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ കൊണ്ട് വിടുകയും വേണം തിരിച്ച് ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കുകയും വേണം ഓക്കെ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക എനിക്ക് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ അറിയേണ്ടത് നാല് പേരു പോയാലും ആറ് പേരു പോയാലും എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്